ആരുടെ കൂടെയാണ് കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ സംശയം ഇല്ലാതെ തന്നെ പറയാം എൻ്റെ ഫാമിലിയുടെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾക്ക് ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലി മക്കളും ഹസ്ബൻഡും എല്ലാം ഒരുമിച്ചിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ യാത്രകളൊക്കെ പോവാറുണ്ട് അത് കൂടുതലും തെൻമല അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോവാറുണ്ട് അതുപോലെ പരുന്തുംപാറ ചടയമംഗലം പിന്നെ കമ്പം തേനി മുന്തിരിത്തോപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഏറ്റവും നല്ല നല്ല അനുഭവങ്ങളാണ് യാത്രയിൽ സ്ഥലം ചെന്ന് കാണുന്നതിലും ഉപരി നമ്മൾ വണ്ടിയിലുള്ള യാത്രയാണ് യാത്ര യാത്രയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന സംഗതികളിൽ പോകുന്ന വഴിക്ക് തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നതായിട്ടും കഴിക്കുന്നനിടയ്ക്കൊക്കെ നമ്മൾ ഇറങ്ങുമ്പം ചില ആറുകളിലൊക്കെ ഇറങ്ങി നമ്മൾ ഒന്ന് ഫ്രഷ് ഒന്ന് കൈകാലൊക്കെ നനക്കുന്നതും അതൊക്കെ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് അത് ഫാമിലിയുടെ കൂടെ തന്നെ പോകുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതെന്ത്കൊണ്ടെന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ അപ്പം കിട്ടുന്ന ഒരുമിച്ചുള്ള ഒരിമിച്ചുള്ള ഇപ്പം കിട്ടുന്ന സന്തോഷം ഒരുമിച്ച് നമുക്ക് കിട്ടുന്ന നമ്മുടെ മനസ്സിലെ ഉള്ള വിഷമങ്ങളും കാര്യങ്ങളെല്ലാം ടെൻഷനുകളും എല്ലാം മാറി വളരെ ഫ്രീ ആയി സന്തോഷം ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുമല്ലോ ഇപ്പം അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം